ഒരുപാടുണ്ട് ബോളിവുഡ് ആണെങ്കിലും കോളിവുഡ് ആണെങ്കിലും ഇന്ത്യയിലെ എല്ലാ ഇടങ്ങളും ഫാഷൻ ട്രെൻഡുകളെ സ്വാധീനിച്ചിട്ടുണ്ട് കാരണം ഓരോ രീതി വരുമ്പോൾ അതിൻ്റെ ഓർണമെൻ്റ്സ് ആണെങ്കിലും ആക്സസ്സറീസ് ആണെങ്കിലും അതിൻ്റെ ഡ്രസ്സാണെങ്കിലും അതുപോലെതന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമാണ് നല്ല നല്ല ഡ്രെസ്സ് വരുമ്പോൾ അത് എങ്ങനെ അതുപോലെ ഉണ്ടാക്കാം എന്നാണ് എല്ലാവരും നോക്കുന്നത് ഏറ്റവും ഏത് സെലിബ്രിറ്റീസ് ആണെങ്കിലും ഡ്രസ്സ് ചെയ്യുമ്പോൾ അത് നോക്കിയിട്ട് അതുപോലെ തന്നെ അനുകരിച്ച് കുറേ നെയ്ത്തുകാരും അതുപോലുള്ള ഒരുപാട് വീവേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പേര് ഇത് അതുപോലെതന്നെ കോപ്പി ചെയ്തത് അത് മാർക്കറ്റിൽ വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര നല്ല ഡിമാൻഡാണ് അതിനൊക്കെ നല്ല റേറ്റുമാണ് അങ്ങനെയൊക്കെ വരുന്നത് ആ എന്നാ ഫാഷൻ ട്രെൻഡുകൾ ചില സിനിമയിലെ ഒരുപാട് കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങൾ ഇടുന്നതൊക്കെ ചിലപ്പോൾ ചിലതൊക്കെ നമുക്ക് നല്ലപോലെ ഇഷ്ടം തോന്നിയിട്ടുണ്ട് എന്തോ അതിലെ ഒന്നാണ് മേരിക്കുണ്ടൊരു കുഞ്ഞാടിനകത്ത് അനാർക്കലി ചുരിദാറൊക്കെ വന്നപ്പോൾ അതൊക്കെ അതിൻ്റെ പുറകേ എല്ലാവരും പോയി അതുപോലെ ഏത് സിനിമയാണെന്ന് എനിക്ക് ഓർമ്മയില്ല അതിൻ്റെ ബോയ്സ് ചെറിയ കുട്ടികളുടെ ആൺകുട്ടികളുടെ ഒരു ഏതാണ് ഒരു ഒരു കോട്ട് ആൻ്റ് കോട്ട് വിത്തേ ഒരു എന്നാ അതിനുപറയുന്നത് ഇതൊക്കെെ ഒരുപാട് ട്രെൻഡായിട്ടുണ്ട് നമ്മളെ പുതിയ ട്രെൻഡ് ആ സമയത്തത് വാങ്ങിക്കാൻ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് വേണം ഈ ക്യാഷുള്ളതുപോലെ കയ്യിൽ പൈസയുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാൻ നമ്മൾ നോക്കും നിങ്ങളെ ഫംഗ്ഷനൊ അങ്ങനത്തെയൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു പുതുതായിട്ട് ഇന്നും ഒരു ഔട്ട് ഇതൊക്കെ ഒരു ന്യൂ ഫാഷനായിട്ടാണ് ഇവർ കൊണ്ടുവരുന്നത് ബോളിവുഡ് ടോളിവുഡ് അവരാണ് അവരുടെ ഡിസൈനേഴ്സ് ഒക്കെയാണെങ്കിൽ ഏറ്റവും പുതിയ മോഡല് പുതിയ ട്രെൻഡ് അനുസരിച്ച് പുതിയ മോഡലുകളൊക്കെ തയ്ച്ചു കൊടുക്കുന്നതാണ് അപ്പോഴത് കൊണ്ടുവരാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ എല്ലാവർക്കും അതിൻ്റെ പുറകേ പോകുന്നവരുണ്ട് ഇത് ഏത് ഫാഷൻ കിട്ടിയാലും അതിൻ്റെ പുറകെയെല്ലാം പോകുന്നൊരു വിചാരമുണ്ട് ഇന്ന് സാമ്പത്തികമായിട്ടും എങ്ങനെയാണ് നമ്മുടെ ജീവിത നിലവാരം എങ്ങനെയാണ് അതനുസരിച്ച് നല്ല സാമ്പത്തികം ഉള്ളവരൊക്കെ അത് എല്ലാമതിൻ്റെ പുറകെ നടന്നു പണ്ട് അനിയത്തിപ്രാവ് ഉണ്ടായിരുന്നപ്പോൾ ഒരു ഹെയറിൽ കെട്ടുന്നൊരു റിബൺ ഉണ്ടായിരുന്നു അത് ഭയങ്കര ഫേമസായിരുന്നു ആ സമയത്ത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് പേരത് വാങ്ങിക്കും ചെയ്യും എന്നിട്ട് നമ്മുടെ ഫംഗ്ഷനിപ്പോൾ പിന്നെ പള്ളിത്തിരുന്നാളൊക്കെ വരുമ്പോൾ ആ സമയത്ത് നമ്മുടെ വാശ്വാണിക്കടവിലൊക്കെ ഇത് കാണുന്നതാണ് പല പല ഐറ്റംസും ചിലപ്പോൾ പല ബോളിവുഡ് ടോളിവുഡ് ഇങ്ങനെയുള്ള മോളിവുഡ് എല്ലാം ഇതിനെ ആശ്രയിച്ചായിരിക്കും ബോളിവുഡ്ലും ബോളിവുഡ് താരങ്ങളിടുന്ന ലഹങ്കാസ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അവരുടെ ഷർവാണീസ് ജെൻസിൻ്റെ ഷർവാണീസ് അതുപോലെ എന്നാ വുമൺസിൻ്റെ ലഹങ്കാസ് അതൊക്കെയാണ് നമ്മുടെ ഇവിടെയിപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരിക്കലും അതുപോലെ ടോളിവുഡ്ഡാണെങ്കിലും ടോളിവുഡിലെ ആണെങ്കിലും ഈയടുത്ത കാലത്തുണ്ടായിരുന്നത് അമ്പാനി കല്ല്യാണത്തിന് ജ്യോതിക ഉടുത്തിരുന്ന സാരി അത് ഭയങ്കര ട്രെൻഡിങ്ങായിരുന്നു അതുപോലെ അതൊക്കെയാണെങ്കിൽ ആ പേരു പറഞ്ഞുപോയി എന്നെ ഓരോ ടെക്ടൈൽസിലൊക്കെ പോയി ചോദിക്കുന്നവരുണ്ട് നമ്മളാരേയും അതൊക്കെ നമ്മൾ അത് നമ്മളത് എല്ലാം നോക്കിവേണം ചെയ്യാൻ ബോളിവുഡിലെ എല്ലാ ട്രെൻഡുകളും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് വസ്ത്രധാരണരീതി പ്രത്യേകിച്ച് വസ്ത്രധാരണം സിനിമകൾ കഥാപാത്രങ്ങൾ അതെല്ലാം അതാത് രീതി അതാതു കാലത്തെ ഡ്രസ്സുകളാണ് അതാത് പുതിയ തലമുറകളെ ന്യൂ ജനറേഷൻസാണത് കൂടുതലും ഉപയോഗിക്കുന്നെ ഏതു സിനിമയിറങ്ങുന്നു അതിൻ്റകത്തെ അത് കണ്ടു അതേപോലെ തയ്പ്പിച്ചു അതിൻ്റെ കുറച്ച് ഫാൻസ് അസോസിയേഷൻസ് അവരെല്ലാംകൂടി അത് പ്രൊമോട്ട് ചെയ്യുന്നു അത് പൊതുവിപണിയിൽ എത്തുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നടത്തുന്നുണ്ടല്ലോ ഇവരുടെ ഫാഷൻ ട്രെൻ്റുകളാണ് നമ്മുടെ ഫാഷനെ നല്ലപോലെ സ്വാധീനിച്ചിട്ടുണ്ട് ഓരോ മോഡലിറങ്ങിയാൽ എന്നും എന്നും ഒരേ മോഡലിടാൻ എല്ലാവർക്കും ഒരു വിരസത തോന്നുന്നില്ലേ അപ്പോൾ പുതിയ പുതിയ മോഡലുകൾ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇടും അതു കണ്ട് മറ്റുള്ളവർ അപ്പോൾ അവർക്കൊരു ആവശ്യം ഒരു ആഗ്രഹവും കാണുമല്ലോ അതെങ്ങനെയാണ് അത് ഇടുന്നത് അത് അതിൻ്റെ രീതി എങ്ങനെയാണ് അങ്ങനെയങ്ങനെ നമ്മുടെ ട്രെൻ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളിപ്പോഴും ഇങ്ങനെ മാറുന്ന നമ്മുടെ ജീവിതത്തിലേയും ഈ ഫാഷൻ ട്രെൻഡുകൾ അനുസരിച്ച് മാറുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെക്കാലത്ത് സാരി പോലും ഇന്നത്തെക്കാലത്ത് അന്യം നിന്ന് നിൽക്കുകയാണ് ഓരോ കാര്യങ്ങളിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പണ്ടുള്ള ചട്ടയും മുണ്ടും ഉടുത്തുകൊണ്ട് ഇന്നത്തെ ആൾക്കാരും ജീവിച്ചേനെ പക്ഷേ ഈ എനിക്ക് തോന്നുന്ന ഈ ബോളിവുണ്ട് ടോളിവുണ്ട് ഇന്ത്യ എല്ലാമങ്ങനെ ഭാഷയിനെ സ്വാധീനിച്ചിട്ടുണ്ട് നല്ലതുപോലെ നല്ലപോലെ സ്വാധീച്ചിട്ടുണ്ട് ബോളിവുഡിലെ ഒരുപാട് കാര്യങ്ങൾ അതാണിപ്പം ഇവിടെയുള്ളവർ നോക്കി നോക്കി ഷെർവാണീസ് ആണെങ്കിലും അതുപോലെ ജുബാസ്സൊക്കെ ആണെങ്കിലും അതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നോർത്ത് ഇന്ത്യൻസ് പാൻ്റ് പാൻസ് അല്ലെങ്കിൽ നമ്മൾ ഇന്നും മുണ്ടുടുത്തുകൊണ്ട് നടന്നേനെ എല്ലാവരും പാൻസ് ജീൻസ് ഇതെല്ലാം ബോളിവുഡിൻ്റെയൊക്കെ കണ്ട് അനുകരിച്ച് അല്ലെങ്കിൽ വെസ്റ്റേൺ അങ്ങനെയുള്ള രീതിയിൽ അനുകരിച്ചാണ് നമ്മളിതെല്ലാം ട്രെൻ്റ് കൊണ്ടുവരുന്നതിപ്പോൾ പൂർണ്ണമായിട്ടും മോളിവുഡും ടോളിവുഡും ബോളിവുഡും അല്ല എങ്കിലും നമ്മൾ കുറച്ചെങ്കിലുമൊക്കെ എല്ലായിടത്തും അനുകരണമുണ്ട് ബോളിവുഡ്ഡിലെയൊക്കെ പിന്നെ സെലിബ്രിറ്റീസിൻ്റെ സാരീസൊക്കെയാണെങ്കിലും നമ്മുടെ അവിടെ നല്ല ആ പേരിലങ്ങ് ഇറക്കിയാൽ മതി അതിൻ്റെ ഒരു ഫോട്ടോയും കൂടി കാണിച്ചാൽ മതി പിന്നെ ഓക്കെ എല്ലാവരും